നമ്മുടെ ജില്ലയിൽ ഒത്തിരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് ബീച്ചുകളായാലും ഇപ്പോൾ കപ്പല് കാണാൻ വേണ്ടി വരുന്നവരുണ്ട് ബോട്ട് കാണാൻ വേണ്ടി വരുന്നവരുണ്ട് പിന്നെ കരിയത്ത് പാറ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഹൈലൈറ്റ് മാൾ കാണാൻ വേണ്ടി വരുന്നുണ്ട് എസ് എം സ്ട്രീറ്റ് കാണാൻ വേണ്ടി വരുന്നവരുണ്ട് മിട്ടായിത്തെരുവ് കാണാൻ വേണ്ടി വരുന്നവരുണ്ട് ഒത്തിരി ഒത്തിരി പിന്നെ ടെമ്പിളുകള് ഒക്കെ കാണാൻ വേണ്ടി വരുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് വിനോദ സഞ്ചാരി അതായത് സഞ്ചാരികളിപ്പോൾ വേറെയെവിടേക്കെങ്കിലും പോവണമെങ്കിലൊന്ന് കോഴിക്കോട് ഇറങ്ങാതെ പോകാൻ പറ്റില്ലാത്ത രീതിയിലായിട്ടുണ്ട് കാരണം റെയിൽവേ സ്റ്റേഷനുണ്ട് പിന്നെ വിമാനത്താവളമുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ഇതുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരേയും ആകർഷിക്കുന്ന ഒന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡെല്ലാവരേയും ആകർഷിക്കും നമ്മുടെ നമ്മുടെ സ്നേഹമാണു നമ്മുടെ ഫുഡ് എല്ലാവരേയും ആകർഷിക്കുന്ന ഒന്നാണ് ഫുഡ് നല്ല ബിരിയാണി ബിരിയാണിക്ക് പേര് കേട്ട മല അതായത് ഇപ്പോൾ എന്താ പറയുക പേരു കേട്ടൊരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ബിരിയാണി സ്പെഷ്യൽ ആണ് എവിടെ ഉള്ളവർക്ക് പിന്നെ അതേപോലെത്തന്നെയാണ് പിന്നെ നമ്മുടെ ഹൽവ കോഴിക്കോടൻ ഹൽവയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെച്ചെന്നാലും കോഴിക്കോടൻ ഹൽവ എന്നുള്ളൊരിതുണ്ടാവും ഈ ഇപ്പോൾ നമ്മള് വേറെ സ്റ്റേറ്റിൽപ്പോകട്ടെ വേറെ ജില്ലയിൽ പൊയ്ക്കോട്ടെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമിപ്പോൾ ഒരു ഉത്സവമോ എന്തെങ്കിലും ഫങ്ഷൻ ഇപ്പോൾ ഉത്സവങ്ങളിലൊക്കെയാണല്ലോ ഹൽവ പൊരിയൊക്കെ വിൽക്കുക അപ്പോൾ ഉണ്ടാവും ഒരു കോഴിക്കോടൻ ഹൽവയെന്നു പറഞ്ഞൊരു സ്റ്റാള് സെപ്പറേറ്റായിട്ട് അപ്പോൾ അങ്ങനെയുള്ളത് പിന്നെ നമുക്ക് ചീപ്പ് റേറ്റില് സാധനങ്ങൾ ഒക്കെ കിട്ടുന്ന ഇപ്പോൾ മാർക്കറ്റിങ്ങില് ഭയങ്കര ഡ്രെസ്സിനും ചെരുപ്പിനും ഒക്കെ ഭയങ്കര വിലയായിരിക്കും നമ്മൾ അപ്പോൾ ഇവിടെ നമ്മള് പോകുമ്പോൾ ചീപ്പ് റേറ്റിന് നമുക്ക് ഈ ബാംഗ്ലൂർ മുംബൈലൊക്കെ പോകുന്ന പോലെ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് അതൊക്കെക്കൊണ്ട് എല്ലാവരും ആകർഷകമാകുന്നു പിന്നെ നമ്മള് ബീച്ച് ബീച്ച് എല്ലാവരുടെ ഒരു എന്താ പറയുക സ്വകാര്യ വികാരമാണല്ലോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒക്കെ എല്ലാവരും അട്രാക്ഷൻ വരുന്നതുകൊണ്ട് അവരൊക്കെ അവിടെയൊക്കെ പോകുന്നു